പൊതുവെ യാത്ര ഇഷ്ടപ്പെടുന്ന മലയാളി യുവാക്കൾ പ്രത്യേകിച്ച് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ദുൽക്കർ സൽമാൻ നായകനായിട്ടുള്ള ഒരു റോഡ് മൂവി ഇറങ്ങിയതിന് ശേഷം യാത്ര ചെയ്യുന്ന യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നതും എടുക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ബേക്ക് അത് ബുള്ളറ്റാണ് അല്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ മോഡലിലുള്ള ആർലി ഡേവിഡ്സനോ ഇന്ത്യനാ ട്രംഫോ തുടങ്ങിയുള്ള ബൈക്കുകളാണ് കാരണം ദീർഘ യാത്രകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ബൈക്കുകൾ വലിയ സീറ്റുകളുള്ള ബൈക്കുകൾ ഇരുന്ന് യാത്ര ചെയ്യാൻ വളരെ സുഖപ്രദമാണ് മാത്രമല്ല അതിൽ പക്ഷെ നമുക്ക് സ്ഥിര ഉപയോഗത്തിന് വേണ്ടി ആ ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചെലവ് കൂടുകയും ചെയ്യും അതിൻ്റെ പെട്രോൾ ചിലവ് മറ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ നിത്യജീവിതത്തിൽ ഞാൻ ഒരു ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ചിലവ് തന്നെയാണ് യാത്ര ചെയ്യുമ്പോൾ അത് സുഖപ്രദമായത് കൊണ്ട് തന്നെ ചിലവ് നോക്കാത അതിനെ എടുക്കാനും താല്പര്യപ്പെടുന്നു മറ്റ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുള്ള ബൈക്കുകൾ പ്ലാറ്റിന പോലെ ഒരുപാട് മൈലേജുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ പൾസറ് അതുപോലെ സ്പ്ലെൻണ്ടർ ഇന്ന് പുതിയ സ്പ്ലെണ്ടറിൻ്റെ പുതിയ മോഡലുകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യുവാക്കൾ പലരുമത് എടുക്കുന്നുണ്ട് പിന്നെ യുവാക്കൾക്ക് താല്പര്യമുള്ള മറ്റൊരു ബൈക്കാണ് ആർ ഡി എക്സ് അതുപോലെ സി ടി ഹൺഡ്രഡിൻ്റെ പഴയ മോഡൽ ബൈക്കുകളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും യാത്രകളുടെ സൗകര്യപ്രദമായ ബൈക്ക് എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ബൈക്കുകളായിരിക്കില്ല പിന്നെ ഹിമാലയ പോലുള്ള ബൈക്കുകൾ അതിൻ്റെ സോക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ യാത്രക്ക് വേണ്ടി സൗകര്യപ്രദമായക്കെിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യപ്രദമായത് നമ്മുടെ ബുള്ളറ്റ് പോലുള്ള ബൈക്കുകളാണ് അല്ലെങ്കിൽ ബി എം ഡബ്ലിയുടെയൊക്കെ യാത്ര ബൈക്കുകളുണ്ട് അതിൻ്റെ ഹിമാലയയുടെ മോഡലാണാ ബൈക്കുകളെങ്കിലും അതിൻ്റെ സീറ്റുകൾ കുറച്ചുംകൂടി വലിയ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള യാത്ര ബൈക്കുകളുണ്ട് അപ്പോൾ ഹോൺഡേടെ ഗോൾഡ് വിങ് അതൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ബൈക്കുകളാണ് ഇത്രയുമാണ് ബൈക്കുകളെ പറ്റി പറയാനുള്ളത് ബൈക്കുകളുടെ സൗന്ദര്യം അത് അത് ആസ്വദിക്കുന്നവർക്ക് അത് മറ്റൊരു കാര്യം ഇത്തരത്തിൽ തന്നെയുള്ളതാണ്